നമുക്ക് ഇപ്പോളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ അംഗവൈകല്യം ഉള്ളവരൊക്കെ ഉണ്ടെന്നു വേണമെങ്കിൽ പറയാം ഇപ്പം കണ്ണു കാണാത്ത പല രീതിയിലുള്ള ആൾക്കാരുണ്ട് ഇപ്പം ചെറിയതായിട്ട് കാഴ്ച്ചയൊക്കെയുള്ള കാഴ്ച്ച ഉള്ളവരും ചെറിതായിട്ട് മഞ്ഞ കളറുള്ളവരും പൂർണ്ണമായിട്ടും കാഴ്ചശക്തി നഷ്ടപ്പെട്ടവരൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവരൊക്കെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലാണ് ഇവർക്ക് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കാഴ്ച്ച ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പം എന്താണ് തൊടുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പം അവർക്കായിട്ടുള്ളൊരു ഇതാണ് ടെക്സ്റ്റ് ടു സ്പീച്ചെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് നമ്മുടെ ആക്സസിബിലിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽത്തന്നെ അറിയാം അതിനകത്ത് ടെക്സ്റ്റ് ടു സ്പീച്ചെന്നു പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അത് നമുക്ക് അവർ എങ്ങനെയാണെന്നു വെച്ചു കഴിഞ്ഞാൽ രണ്ട് കൈ വെച്ച് നമ്മൾ തോണ്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിനകത്ത് ഓരോ കാര്യങ്ങളൊക്കെ വരികയുള്ളൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ എന്താണോ ടച്ച് ചെയ്യുന്നത് അതിനകത്ത് അത് പറയും ഇതാണ് നമ്മൾ ടച്ച് ചെയ്തതെന്ന് നമുക്ക് അതിനകത്ത് പറഞ്ഞു കേൾക്കും കേൾ കേട്ടു കഴിഞ്ഞാൽത്തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാകും ഇങ്ങനത്തെ ഇതാണ് നമ്മൾ ടച്ച് ചെയ്തതെന്നു പറഞ്ഞിട്ട് അപ്പം നമുക്ക് അതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏതാണോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചത് അത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അങ്ങനത്തെ പല രീതിയിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മൊബൈൽ ഫോണിൽ ഇപ്പോൾ ഉണ്ട്